ഉൾനാടൻ പ്രദേശത്തെ പ്രാദേശിക കാർഷിക വ്യവസായത്തെ പിൻതാങ്ങാനായി സ്ഥാപിച്ചിട്ടുള്ള സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് കന്നുകാലി കൃഷികളുണ്ട് കന്നുകാലി വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെത്തന്നെ കോഴി വിതരണം കോഴി ഇപ്പോൾ കോഴി മുട്ട വിതരണം കോഴി വിതരണം അതുപോലെ കോഴിതീറ്റ ഇതൊക്കെ വിതരണം ചെയ്യുന്നതൊക്കെ പ്രാദേശിക ഉൾനാടൻ പ്രദേശത്തെ കാർഷിക വ്യവസായം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെത്തന്നെ കാർഷി കാർഷിക ഉൽപ്പന്ന ഉൽപ്പന്നങ്ങള് വീടുകളിൽ ജൈവവളം ഉപയോഗിച്ചുണ്ടാക്കുന്ന കൃഷി കൃഷിചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികള് അതുപോലെ മധുരക്കിഴങ്ങ് അതുപോലെ ഒരുപാട് കപ്പ മരച്ചീനി ചേമ്പ് ചേന ഇതൊക്കെ കൃഷി ചെയ്ത് ജൈവവളം ഉപയോഗിച്ച് കൃഷിചെയ്ത് നട പിന്നെ അത് വിൽപ്പന ചെയ്യാൻ രൂപീകരിക്കുന്ന ചന്തകള് പിന്നൊരുപാട് ഉൾ ഉൾ ഉൾനാടൻ രീതികളില് ചെറിയ ചെറിയ മീൻ മാർക്കറ്റുകളുണ്ട് അതുപോലെത്തന്നെ വിനോദസഞ്ചാരങ്ങൾ ഇപ്പോൾ കർഷകർ ഇപ്പോൾ നെല്ല് കൊയ്യുന്നതും വിതയ്ക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് കേട്ടറിവല്ലേയുള്ളു കണ്ടറിവില്ലല്ലോ അതുപോലെയുള്ള ഈ അറിവ് മറ്റുള്ളവർക്കും കൂടെ പകർന്ന് പകരുന്നതിന് പകർന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് പിന്നെ അവർക്ക് മറ്റുള്ളവർക്ക് ഒരു കാഴ്ച വെക്കാൻ വേണ്ടിയിട്ട് അവര് ഇപ്പോൾ വിനോദസഞ്ചാരികള് ഒര് ഓരോരുത്തര് വന്നത് കാണാനുള്ള ഒരവസരം അവർക്ക് നൽകുന്നുണ്ട് സ്കൂളുകളിലെ കുട്ടികൾക്കാണെങ്കിൽ കുട്ടി ഓരോ ക്ലാസിലെ കുട്ടികളെയാണെങ്കിലും ടീച്ചേർസ് അവരെ കൊണ്ട് പോയി ഈ വയലിലെങ്ങനെയാണ് വിതയ്ക്കുന്നത് കൊയ്യുന്നത് നെൽകൃഷി എങ്ങനെയാണ് ചെയ്യുന്നത് അത് മെതിക്കുന്നത് എല്ലാം അത് കൊയ്യു കൊയ്യുന്നതും നെല്ല് എങ്ങനെയാണ് അതൊക്കെ എല്ലാ കുട്ടികൾക്കും ഉള്ള ഒരറിവ് ഇപ്പോൾ പകർന്ന് കൊടുക്കുന്നത് അത് ഇതുപോലുള്ള ഒരുപാട് ചന്തകളൊക്കെ ഇപ്പം വിലക്കുറഞ്ഞ അരി വിലക്കുറവില് അരി ഗോതമ്പ് അതുപോലെ എല്ലാം വിതരണം ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് എ അവര് ചെയ്യുന്ന വ്യവസായങ്ങൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ എന്ന് പറയുന്നത്